ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് പ്രകൃതി വിഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എ ഏകദേശം എല്ലാ സാധനങ്ങളും പ്രകൃതിയിൽ നിന്നാണ് ഉല്പാദിപ്പിക്കുന്നത് ഇപ്പം റബർ പാല് അത് നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് ഉല്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മെയിനായിട്ട് പ്രകൃതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു മരത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു റബ്ബർ മരം അതിനകത്ത് നിന്ന് നമ്മൾ റബ്ബർ പാല് നമ്മൾ രാവിലെ പോയി വെട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഊറ്റിയിട്ട് അത് മെഷീനിൽ ഇട്ടിട്ട് അച്ചാക്കിയിട്ട് ആണ് നമ്മള് കൂടുതലായിട്ടും എടുക്കുന്നത് അപ്പം റബർ പാൽ എന്ന് പറഞ്ഞ ഒരു അത് അതായത് ആ ഒരു പ്രകൃതി വിഭവത്തിൽ നിന്നാണ് നമ്മൾ റബർ പാലും ഉപയോഗിച്ചിട്ടാണ് ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇപ്പോൾ മരം മുറിച്ചു നമുക്ക് അത് വിറ്റിട്ട് പണം ഉണ്ടാക്കാം പിന്നെ പല രീതിയിൽ നമുക്ക് ഇപ്പോൾ മാങ്ങ മാങ്ങാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫലമാണ് അപ്പോൾ അത് നമുക്ക് ഇത് എന്താ പറയുക നമുക്കത് വിറ്റിട്ട് നമുക്ക് പൈസ വാങ്ങാം അങ്ങനത്തെ പല രീതിയിലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മള് നാട്ടിൽ ഇപ്പം ചെയ്തുവരുന്നുണ്ട് ഇപ്പം കാപ്പി ക കുരുമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ ജസ്റ്റ് അതിന് വളവും കാര്യങ്ങളും ഒക്കെ ഇട്ടു കൊടുക്കുക എല്ലാ അല്ലെങ്കിൽ തന്നെ അതിനകത്തു നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ കുറച്ച് വളം കൂടി ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കും അത് നമുക്ക് പറിച്ചിട്ട് നമുക്ക് പല രീതിയില് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും